ഞാൻ ഇത് സ്വർണ്ണക്കടയല്ലേ എനിക്ക് എൻ്റെ കയ്യിലൊരു പഴയ കൊലുസുണ്ടായിരുന്നു ഇച്ചിരി പൊട്ടി പോയതൊക്കെയാണ് അതൊന്ന് എനിക്ക് മാറ്റി മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത് നയൺ വൺ സിക്സാണ് പക്ഷേ ഇത്തിരി പഴയ മോഡലാണ് ഒന്ന് രണ്ട് പീസ് പൊട്ടിയിട്ടുണ്ട് എനിക്ക് സ്റ്റോൺ വർക്കെടുക്കാൻ താല്പര്യമില്ല അല്ലാത്ത നല്ല മോഡലുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമോ ആണ് സ്വർണത്തിന് ഇപ്പോൾ ഏകദേശം നിങ്ങൾ എത്ര റേറ്റിലാണ് കൊടുക്കുന്നത് ഉവ്വ അപ്പം ഈ പഴയ സ്വർണ്ണത്തിന് വിറ്റ വില വ്യത്യാസം വരുമോന്ന് ഒവ്വ ഇപ്പോൾ അക്ഷയ തൃതീയ ഒക്കെ വരാൻ പോവല്ലേ അപ്പം ആ സമയത്ത് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നാൽ പണിക്കൂലി കുറവ് ഇപ്പോൾ കാണോ അതെയാ അക്ഷയ തൃതീയയുടെ സമയത്ത് ഞാൻ വരുന്നതാണോ നല്ലത് ഞാൻ ഒരു കാര്യം ചോദിക്കാൻ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്ക് ഈ നമ്മൾ ഞാൻ എന്റെ കയ്യിൽ ഒരു പവൻ്റെ സ്വർണമാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് ഇച്ചിരൂടെ കൂടുതൽ മേടിക്കണം ആ അപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻ്റ്ൻ്റെ പരിപാടി ഉണ്ടോ അങ്ങനെ കുറേശ്ശെ പൈസ തന്ന് എടുക്കാൻ പാകത്തിന് നമ്മുടെ എത്ര ബേസ്മെൻ്റ് അടക്കണം നമുക്ക് ഇത് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒന്നര പവൻ എടുക്കുന്നു എങ്കിൽ ആ ആ അപ്പം ഇത്തിരി നാളത്തേക്ക് എന്നുണ്ട് ഞാൻ ആ എന്നാലേ എൻ്റെ എൻ്റെ വാട്സാപ്പ് നമ്പറിണ്ടോ കയ്യിൽ

ആ എന്നാൽ ആ കുഴപ്പമില്ല എന്നാൽ ഇട്ടേക്കെ ഞാൻ എൻ്റെ ആ ആ ഒരു ഹായ് അയച്ചേക്ക് എൻ്റെ നമ്പരിലേക്ക് ഓക്കെ താങ്ക് യൂ എന്നാൽ